സാറേ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ പാസ്പോർട്ടിലെ അഡ്രസ്സ് തിരുത്തണമെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അതിനെക്കുറിച്ചറിയാൻ വേണ്ടി ആയിരുന്നു ഇതിന് അഡ്രസ്സൊക്കെ മാറ്റണമെങ്കിൽ ഞാൻ ഏതു ഓഫീസിലാണ് പോകേണ്ടെ അക്ഷയിലാണോ അതോ വില്ലേജ് ഓഫീസിൽ എവിടെ പോയാൽ ഇതു ചെയ്യേണ്ടതെന്നനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുതരണം പിന്നേ പാസ്പോർട്ട് മാറ്റുന്നതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അഡ്രസ്സ് മാറ്റുന്നതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻസാണ് ഞാൻ കൊണ്ടു വരേണ്ടതെന്നും കൂടെ പറയണം ആധാറോ പാൻ കാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റേഷൻ കാർഡോ എന്തൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടതെന്നും കൂടൊന്ന് പറഞ്ഞു തരണം ഇതെത്ര സമയമെടുക്കുമെന്നും പറയണം ഇതിന് എത്ര കാലാവധി പെട്ടെന്നു കിട്ടുമോ അതോ ഒരുപാട് താമസമുണ്ടോയെന്നും കൂടെയൊന്നു പറയണം